ചരിത്ര പ്രസിദ്ധമായ ഒരു സ്ഥലങ്ങളിലൂടെയൊക്കെ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട് ചരിത്ര പ്രസിദ്ധമായ കോഴിമല കോളേജിൻ്റെ വാതിൽക്കലിലൂടെ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട് അത്തരം അവസരങ്ങളിൽ ആ കോളേജിനെ കുറിച്ച് കൂടുതൽ അറിയാനും കോളേജിൻ്റെ കൺസ്ട്രക്ഷനും കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാനും എനിക്ക് സാധിച്ചു കോഴിമല കോളേജെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടുള്ള കാലത്ത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് മുതൽ ഒരുപാട് കുട്ടികൾ ഇടുക്കി എന്ന സ്ഥലത്ത് പഠിക്കാൻ പോയ ഒരു സലമാണ് അപ്പം കുറെ കൂടുതൽ കാലം ആയപ്പം അത് സാങ്കേതികമായ ബുദ്ധിമുട്ടുകൾ കൊണ്ട് അടച്ച് പൂട്ടേണ്ടി വന്നെങ്കിലും ഒരുപാട് കുട്ടികൾ അവിടെ പഠിച്ചിട്ടുണ്ട് ഒരുപാട് കുട്ടികളൊക്കെ പഠിച്ച കുട്ടികൾക്ക് അവിടുത്തെ കോളേജിനെ കുറിച്ച് വലിയ വലിയ അഭിപ്രായമാണ് ഇപ്പം അത്തരം ഒരു ഇപ്പോൾ ഒരു ഒരു ഹൈകിങ് ബോട്ട് പോലെയാണ് കിടക്കുന്നത് കോളേജിൻ്റെ പുറകിൽ കൂടെയൊക്കെ ഇറങ്ങുമ്പത്തേക്കും ഒരുപാട് താഴേക്ക് ഇറങ്ങി ഇറങ്ങി ഇറങ്ങി കൊക്ക പോലെയൊക്കെ കിടക്കുന്നുണ്ട് അപ്പം അങ്ങോട്ടും പോവാനുള്ള അവസരമൊക്കെ നമുക്ക് കാണാൻ സാധിക്കാറുണ്ട് ചരിത്രത്തിൽ ഇടം നേടുക എന്ന് പറഞ്ഞൂ കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറഞ് കഴിഞ്ഞാല് അവിടെയുള്ള പരിസര വാസികളും പത്തും പന്ത്രണ്ടും ഇരുപതും മുപ്പതും കിലോമീറ്ററുകൾ താണ്ടി അവിടെ പണ്ട് പഠിക്കാൻ വന്നിരുന്നു എന്നതാണ് ചരിത്രം അത്തരം അത്തരം ഒരു കോളേജിൽ പഠിച്ചു മുന്നോട്ട് കടന്നു വന്ന ഒരുപാട് പേർ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്